ഇപ്പോഴുള്ള വാർത്തകൾ അല്ലെങ്കില് മാധ്യമങ്ങൾ വാർത്തകളെ ഭയങ്കരമായിട്ടും വളച്ചൊടിച്ച് ഒരിക്കലും നേരായ രീതിക്കല്ല പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കാരണം എല്ലാവരും പൈസക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ പൈസ എന്നൊരു കാര്യത്തിന് വേണ്ടി മാത്രം വാർത്തകളെ വളച്ചൊടിച്ചാണ് മാധ്യമങ്ങൾ പ്രേക്ഷകരിലെക്കെത്തിക്കുന്നത് അത് വിശ്വസിക്കുന്ന പ്രേക്ഷകർ വളരെ അധികമുണ്ട് ഈ വാർത്തകളെ മാത്രം അല്ലെങ്കിൽ മാധ്യമങ്ങളെ മാത്രം ഒരൂ വാർത്തകളെ മാത്രം നമ്മുടെ പുറത്തുള്ള കാര്യങ്ങളറിയാൻ വേണ്ടി ഒരൂ മീഡിയമാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടില് അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ഒരുപാടൊരുപാട് പ്രശസ്തമായ മാധ്യമങ്ങളും പത്രങ്ങളും ഒക്കെ ഇപ്പൊൾ പൈസയ്ക്ക് വേണ്ടിയാണ് സേവനം ചെയ്യുന്നത് അങ്ങനൊരുപാടൊരുപാടുണ്ട് ഇന്ന പേരെടുത്തു പറയാനായിട്ട് അങ്ങനില്ല എന്നാലും ഭൂരിഭാഗം വാർത്താ ചാനലുകള് അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങള് പത്രങ്ങള് എല്ലാം പൈസക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എനിക്കറിയാവുന്ന പത്രങ്ങൾ എന്ന് പറയുന്ന മനോരമ മാതൃഭൂമി ന്യൂസ് റ്റുഡേ അങ്ങനെ കുറേ വാർത്തകളുണ്ട് അല്ല പത്രങ്ങളുണ്ട് ചാനലുകള് മനോരമ ചാനലുണ്ട് ഏഷ്യാനെറ്റ് മാതൃഭൂമി ട്വന്റിഫോർ അങ്ങനെ ഒരുപാട് ചാനലുകള് അങ്ങനെ ഇത്രയാണ് എനിക്കറിയാവുന്നത്